ആ അതേല്ലോ

ആ പറഞ്ഞോ ആ അതിന് എന്താ

ആ എംറ്റി ചില അരിക്കും സാധനങ്ങൾക്കൊക്കെ കുറെ ഓഫറുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ എന്തോ പവിഴം ഒരു അഞ്ഞൂറ്റിപ്പത്തിനൊക്കെ വരും

ഓഫറുണ്ട് അതിൽ നിന്നും അത് കുറയും അമ്മയ്ക്ക് അൻപത്തി മൂന്ന് ഇതിനൊക്കെ ഓഫറുണ്ട്

ഡിസ്കൗണ്ട് ആ ഉവ്വ് അപ്പം അതിൻ്റെതായ എക്സ്പെൻസ് വണ്ടിക്കൂലി

ആ ഉവ്വ്

ആ അല്ല അത് വാട്സാപ്പിൽ അയച്ചേര് അയച്ചേരെ ഞാൻ അതിൻ്റെ ബില്ല് ഞാൻ നോക്കിയിട്ട് പറയാം

ആ അതെ എൻ്റെ ഈ നമ്പറിൽ വിളി നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ ഡിസ്കൗണ്ടെല്ലാം കഴിച്ച് ഡിസ്കൗണ്ടെല്ലാം കഴിച്ച് പിന്നെ വണ്ടിക്കൂലി എക്സ്പെൻസ് വരും എല്ലാംകൂടി ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ